പതിമൂന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണുറ്റിയൊമ്പത് പതിനാല് നാല് രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തി മൂന്ന് എട്ട് രണ്ടായിരത്തി മൂന്ന് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി പതിനാല് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട്